എട്ട് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏഴ് പത്ത് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത് എട്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുപ്പത് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തിയേഴ് പതിനാറ് ഒൻപത് രണ്ടായിരത്തി പതിനാല്